എനിക്ക് ഒരു സഹോദരിയാണുള്ളത് എൽഡർ സിസ്റ്ററാണ് എന്നെക്കാളും രണ്ട് വയസ്സ് മൂത്തതാണ് ഇപ്പം എൻ്റെയൊരു സെക്കൻഡ് മദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ അവളെന്ന് പറയുമ്പോൾ കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ബട്ട് ഞാൻ നേരെ തിരിച്ചാണ് അയിനോടൊന്നും തീരെ താൽപര്യമില്ല പിന്നെ എനിക്കാണെങ്കിൽ വായന എഴുത്തിനോടൊക്കെ താല്പര്യമുണ്ടെകിലും അവൾക്ക് പറയുമ്പോൾ ഫോണ് കാര്യങ്ങള് ആണ് കൂടുതലും താൽപര്യം ഇള്ളത് പിന്നെ എനിക്ക് പാട്ട് കേൾ ക്കാനാണിഷ്ടെങ്കിൽ അവൾക്ക് നേരെമറിച്ച് പാട്ട് പാടാനാണിഷ്ടം അതേപോലെതന്നെ എനിക്ക് നൃത്തം ചെയ്യുന്നത് കാണുന്നതിനും ആസ്വദിക്കാനും അതേപോലെതന്നെ ചെയ്യാനൊക്കെ ഇഷ്ടാണ് എന്നെപോലെയല്ലവള് ഡാൻസ് കളിക്കുന്ന ഒരാളൊക്കെയാണ് അവള് പറയുമ്പോൾ പിന്നെ എല്ലാംകൊണ്ടും പഠിത്തത്തിൻ്റെ കാര്യത്തിലാണേലും ഒക്കെ രണ്ട് പേരും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് അവൾക്ക് പറയുമ്പോ എല്ലാ ആക്ടിവിറ്റീസിലും പെട്ടെന്ന് പങ്കെടുക്കുന്ന ഒരു ഇന്ട്രോവേർഡ് പേഴ്സൺ തന്നെയാണവളും ഇൻറ്റർവേട്ടല്ല എക്സ്ട്രോവേട്ടാ ണവള് അതേപോലെതന്നെയാണ് ഞാനും